ഇന്ന് മലയാളഭാഷയില് ഇപ്പോൾ ഇംഗ്ലീഷ് ബ ഭാഷ വന്നതിന് ശേഷം കൊച്ചു കുട്ടികൾക്ക് വരെ പല മലയാളഭാഷകളും നമ്മളുടെ അർത്ഥങ്ങളും വാക്കുകളും പറയാൻ പോലും അറിയില്ല എല്ലാം ജനിച്ച് വീഴുന്ന കുട്ടികള് തൊട്ട് വർത്താനം പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ പല വാക്കുകളും ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മൾ ഇപ്പഴത്തെ മാതാപിതാക്കൾ പഠിപ്പിച്ച് വിടുന്നത് നമ്മളുടെ ശരിക്കുള്ള മലയാളഭാഷയെക്കുറിച്ച് കുട്ടികൾക്ക് ഒന്നും പറഞ്ഞ് കൊടുക്കുന്നതുല്ല പഠിപ്പിച്ച് കൊടുക്കുന്നില്ല മലയാളഭാഷ ഏറ്റവും കുറഞ്ഞ ഒരു നിലവാരമായിട്ടാണ് ഇപ്പോൾ മാതാപിതാക്കൾ കാണുന്നത് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് ഉപകാരമാണ് താനും പല രാജ്യങ്ങളിലും നമ്മള് പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയണമെങ്കില് സംസാരിക്കാനും നമ്മളാവശ്യങ്ങള് പറയാനും എല്ലാറ്റിനും ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യമാണ് എന്നാൽ പോലും നമ്മള് മലയാളഭാഷയെ ഇപ്പോൾ തീരെ ഒര് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവരായാൽ പോലും മലയാളഭാഷ അറിഞ്ഞ് കഴിഞ്ഞാൽ പോലും അത് സംസാരിക്കാതെ ഇംഗ്ലീഷ് ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാതൃഭാഷയെ എ ഒര് കുറഞ്ഞ നിലവാരത്തിലേക്ക് ചവിട്ടി അരക്കുന്നൊരു കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ പുതുതലമുറയിൽ കണ്ട് വരുന്നത് മലയാളഭാഷയെ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കുന്നതും മാതാപിതാക്കൾക്ക് ഒര് കുറച്ചിലായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പഠന രീതിയെല്ലാം